ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് തന്നെ ആണ് റേറ്റിങ്ങും ഒക്കെ നോക്കി തന്നെ ആണ് എടുത്തത് ഒരു റെഡ് കളർ ആണ് കുർത്തി അത് ഞാൻ എട് ഞാനത് കൊണ്ടുവന്നപ്പം ആദ്യം വിചാരിച്ചു മെറ്റീരിയൽ ന നല്ലതായിരിക്കില്ല ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്തപ്പോഴാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കളറും എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുർത്തിയായിരുന്നു ഞാൻ ഇതിന് മുൻപും കുറേ കുർത്തീസും അതും ഇതും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസോ എന്തെങ്കിലും പ്രോഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ഇതായി ആവും പക്ഷേ എങ്കിൽ തന്നെ ഞാനൊരു കു കുർത്തി ഓർഡർ ചെയ്ത് എനിക്ക് നല്ല ഉപയോഗമാണ് നല്ല ഇട്ടാലും നല്ല കംഫർട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഞാൻ ഇത്രയും അഫൊർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എനിക്ക് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ എന്താണ് പറയുക അതും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ച് നെഗറ്റീവ് റിവ്യൂസും ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ട് വെച്ചിട്ട് ആദ്യം ഒക്കെ ഓർഡർ ചെയ്യാൻ തന്നെ ഒരു മടിയായിരുന്നു പിന്നെ നമ്മൾ മേടിച്ച് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റും എല്ലാം കൊണ്ടും നല്ലതായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഓരോരുത്തർക്ക് സജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയാലും ശരി തന്നെ വർക്കും കാര്യങ്ങളും എല്ലാം കൊണ്ടും അടിപൊളി പ്രൊഡക്റ്റ് എന്താണ് പറയുക ഇനിയും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്താൽ ഇതേപോലെ നല്ല മെറ്റീരിയലും ഒക്കെ ഉള്ള പ്രോഡക്റ്റ് തന്നെ നോക്കി മേടിക്കണം എന്നൊക്കെ തന്നെയാണ് പിന്നെ എന്താണ് പറയുക ഒരുപാട് ദിവസം ലേറ്റ് ആയതൊന്നുമില്ല ഓർഡർ ചെയ്ത് ഫോർ ഫൈവ് വർക്കിങ്ങ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി അതേപോലെ തന്നെ ഡെലിവറി ബോയിയും അതേപോലെ പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തിക്കുകയും ചെയ്തു നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്യാവശ്യം രണ്ട് മൂന്ന് ട്രിപ്പ് ഇടുകയും ചെയ്ത് ഇട്ട് വാഷ് ചെയ്ത ഇട്ട് കഴിഞ്ഞതിന് ശേഷവും ആ ക്വാളിറ്റിക്കൊരു വ്യത്യാസവും വന്നട്ടില്ല നല്ല ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല ഇപ്പം തന്നെ രണ്ട് ട്രിപ്പ് വാഷ് ചെയ്തു അപ്പോഴും ആ കളറിനും മാറ്റം ഒന്നുമില്ല ആ തുണിക്കും മാറ്റം ഒന്നുമില്ല എല്ലാം കൊണ്ടും അടിപൊളിയാണ് അതായത് ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് കൊള്ളാം നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു